നമ്മുടെ നാട് ഇപ്പം ഭയങ്കരമായ പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വളർന്ന് വരുന്ന കുട്ടികൾ പൗരന്മാർ ഇവരെ എല്ലാവരും പിന്നെ നേരിടുന്നതും ഒര് ഇവർ ജീവിച്ച് പോകുന്ന ഇത് ചുറ്റുപാടുകളും വളരെ വളരെ ഏറെ പിന്നെ ദുഖമുള്ളതാക്കുന്ന എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ കുട്ടികളില് മയക്ക് മരുന്ന് ശീലം പിന്നെ മദ്യപാനം അങ്ങനത്തെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ മിട്ടായികളിലും ചോക്ലേറ്റുകളിലും ലഹരിയാണ് കൊടുത്തുകൊണ്ട് വളരുന്നത് അവരത് വലുതാവും തോറും അവരുടെ രീതിയിൽ അവര് വീടുകളിലും സമൂഹത്തിലും അവരെക്കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളാണനുഭവിക്കുന്നത് ഇതെല്ലാം നമ്മള് ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ രാജ്യത്തുള്ള കുട്ടികളെ നമ്മൾ മാറ്റിയെടുക്കേണ്ട ചുമതല നമുക്ക് ഉണ്ട് നമ്മൾക്കോരോരുത്തർക്കും ഉണ്ട് അപ്പം നമ്മള് അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം നമ്മള് വീട്ടിൽ നിന്നുള്ള കുട്ടികളുടെ വളർ വളർച്ചയും വളർ വളർന്ന് വരുന്ന ചുറ്റുപാടുകളും നമ്മൾ അറിയണം കുട്ടികൾ എങ്ങനെയാണ് എവിടെ നിന്നാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോടിയായിട്ട് എല്ലാവരെയും രാജ്യം നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും നിയമവും എല്ലാം നമ്മൾ കാത്ത് സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്